ഈ ചെടികളും പൂക്കളും അതിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റോം ഇഷ്ടമുള്ള കാര്യങ്ങളാന്ന് അതായത് ഒരു ചെടി നടാൻ പിന്നെ പൂക്കളുടെ ചെടി നടാൻ നമ്മൾ എവിടെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ പോലെ നല്ല നല്ല കളറിലോ അല്ലെങ്കിൽ നല്ല വെറൈറ്റിയായിട്ട് എന്തെങ്കിലും ഫ്ലവേഴ്സെല്ലാം കണ്ടാൽ അത് എട് അതിൻ്റെ ചെടി എടുത്തോണ്ട് വന്ന് വീട്ടിൽ നടാം അതായത് ഗാർഡനിങ്ങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതായത് നമ്മുടെ വീട് നമ്മുടെ വീട്ടിന്നു നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മുറ്റത്ത് കുറെ എന്താ പൂക്കളും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സെല്ലാം പിടിക്കുന്ന എന്തെങ്കിലും മരങ്ങളെല്ലാം ആണെങ്കിൽ നമുക്ക് നമുക്ക് മാത്രമല്ല നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരിക്ക് അത് കാണാൻ കുറച്ച് കൂടെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാന്ന് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് നട്ട ഏതെങ്കിലും ഒരു മരമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ പൂവിൻ്റെ ചെടി ആണെങ്കിൽ അത് എന്താ നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് ഒരു അത് അതിലൊരു ഇല വന്നാവരെ എനിക്ക് ഏറ്റോം സന്തോഷമുള്ള കാര്യമാന്ന് അതുപോലെ അതിൽ ഇപ്പം ഒരു പൂ വന്നാലോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇപ്പം ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും അതിലൊരു ഫ്രൂട്ട് ഒരു പഴം അതിൽ പിടിച്ച് വന്നാലത് കാണാൻ നല്ല രസമുള്ള കാര്യമാന്ന് അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാന്ന് കാര്യം ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു എൻ്റെ ഏതോ ഒരു ലക്ഷ്യം സക്സസ്സ് ആയപോലത്തെ അങ്ങനെത്തൊരു ഫീലാണ് എനിക്കത് കാണുമ്പോൾ ഉണ്ടാവൽ അപ്പോൾ ചെറുത് നാൾ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാന്ന് ഈ പൂക്കൾ പിന്നെ അതേപോലെ എന്തെങ്കിലും നട്ട് വളർത്തുകാന്നുള്ളത് അതായത് നമുക്ക് ചെറിയ പ്രായത്തിൽ ഇപ്പെന്താ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതെല്ലാം ആണ് ഗാർഡനിങ്ങ് ചെയ്യാ അതായത് ഇപ്പോൾ വീട്ടുകാരെ നമ്മൾ ചെറുതായിട്ട് ഹെല്പ് ചെയ്യും ആ നീ ഇത് ചെയ്തോ നീ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്താൽ ഞാൻ അതിൽ ഹെൽപ്പ് ചെയ്യാം ചെറിയൊരു തൈയ്യ് നമുക്കടാം നടാം അങ്ങനെയെല്ലാം വീട്ടിന്ന് ഭയങ്കര പ്രോത്സാഹനം ആയിരുന്നു ചെടി നടാനും ഗാർഡനിങ്ങ് ചെയ്യാനെല്ലാം അപ്പോൾ എന്താ ഞാൻ ചെറുത് നാൾ തൊട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഗാർഡനിങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ കുറെ അതുകൊണ്ടന്നെ എനിക്ക് എന്താ പൂക്കളെ പറ്റി കുറെ കാര്യങ്ങൾ പഠിക്ക ഏതാണ് അല്ലെങ്കിൽ ചെറുത് നാൾ നമ്മൾ സയൻസിലെല്ലാം പഠിക്കുന്ന കാര്യമാന്ന് ഒരു പൂവിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടീടെ ഏത് ഭാഗാന്ന് നടല് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എനിക്കത് പഠിക്കുന്ന സമയം തൊട്ടേ എനിക്കത് കുറച്ചും കൂടി ഇൻട്രസ്റ്റുള്ള കാര്യം ആയിരുന്നു ഇപ്പോൾ ഇപ്പം ആ പഠിക്കുന്ന സമയത്ത് പഠിച്ചാലേറ്റവും കൂടുതൽ ഓർമ്മയുള്ളച്ചാ കാര്യം എന്താച്ചാല് എല്ലാം നട്ടിട്ട് നമുക്ക് എന്താ ചെടി വളർത്താമ്പറ്റും സാധാരണയായിട്ട് നമ്മളെന്താ അതിൻ്റെ തണ്ട് കൊണ്ട് നടും അല്ലെങ്കിൽ വേര് നടും പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുള്ള കാര്യേന്താച്ചാല് ഇല നടുന്നെന്നൊള്ളതാണ് അപ്പോൾ സ്കൂളിലൊരു ദിവസം പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറ് പഠിപ്പിച്ചു എല്ലാം നട്ട് നിശാഗന്ധി പൂവുണ്ടാവും അപ്പം ഞാനന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇപ്പം വീട്ടിൽ വേറെ എന്തോ പേരായിരുന്നു ആ സമയത്തുള്ള നാട്ടിലെല്ലാം പറയുന്ന പേര് വേറെ ആയിരുന്ന് പക്ഷേ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഒഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേര് ഓർമ്മ വന്ന് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ് അത് വേണമെന്ന് പറഞ്ഞ് പിന്നത് കൊണ്ട് വന്ന് നട്ട് അത് കുറെ കാലം അതിന് വേണ്ടീട്ട് ഇങ്ങനെ കാത്ത് നിന്ന് കാത്ത് നിന്നിട്ടാണ് അതിൽ പൂ പിടിക്കുന്ന കാരണം എന്താച്ചാ പൂവിനൊരു പ്രത്യേകത ഉണ്ട് ഒരു പ്രത്യേക സമയത്ത് മാത്രമേ അത് പിന്നെ പിടിക്കൂ അതായത് ഒരു ടൈമുണ്ട് ആ ടൈമില് മാത്രമേ അത് പിടിക്കൂ അത് പിടിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും നല്ലൊരു സ്മെല്ലാന്ന് പിന്നത് കാണാനും വേറെ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നെല്ലാം പഠിപ്പിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്താ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാന്ന് ആ പൂവന്ന് പറയുന്നത് ആ പൂ അത് ഞാനന്നെ നട്ട് അല്ലങ്കിൽ എൻ്റെ വീട്ടിലത് കാണണന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് എങ്ങനെല്ലാം വീട്ടിൽ പറഞ്ഞ് സംഘടിപ്പിച്ച് ആ ചെടി നട്ട് അപ്പോൾ ഞാൻ എന്താ ആ ചെടി നട്ടിട്ട് അത് വലുതാവുന്ന വരേലും വലുതാവുന്ന വരെയുള്ള ഒര് ടൈമെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള ടൈമാന്ന് കാരണം എപ്പ പൂ പിടിക്കുന്നു അറിയില്ല അല്ലങ്കിൽ അത് എത്ര എത്ര വലുതായിട്ടാമാണേൽ പൂ പിടിക്കുന്നേ അത് എപ്പാണത് പിന്നെന്താ വിരിയുന്നത് പൂ അതൊന്നും അറിയില്ല ഞാൻ വീട്ടിൽ കൊണ്ട് വന്ന് നട്ട് കുറെ സ്ഥലത്ത് നട്ട് കാരണം ഏതിലാ പിടിക്കണന്ന് അറിയില്ലല്ലോ അങ്ങനെ കുറെ നട്ട് പിന്ന അവസാനം അത് വളർന്ന് വരാൻ തുടങ്ങി അത് ആ ഇല നടുന്നന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊരു ഇൻട്രസ്റ്റ്ള്ള കാര്യമായിരുന്നു ഇല നട്ട് പൂ ഉണ്ടാക്കുകാന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പൂ നട്ട് നിശാഗന്ധി പറയുന്നത് നിശാഗന്ധി പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സാധനായിരിക്കും നിശാഗന്ധിന്ന് പറയലുണ്ട് അത് നല്ലൊരു വെള്ള കളറ് പൂവായിരുന്ന് എൻ്റെ റൂമിൻ്റെ അടുത്ത് ഞാൻ നട്ടിട്ടൊണ്ടായിരുന്ന് എൻ്റെ എൻ്റെ ജനലിൻ്റെ അടുത്ത് അപ്പോൾ എന്താ ആ ചെടി വിടര് പൂ കണ്ട് പൂ എന്ന് വെച്ചാൽ ആദ്യമൊരു ഒരു കൂമ്പുപോലെ വന്നിട്ടുണ്ടായിരുന്നു അത് അപ്പം അതെപ്പോൾ വിരിയുന്ന് അറിയില്ല അങ്ങന കുറെ ദിവസം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് വിരിയുന്ന സമയം നല്ല മണമായിരിക്കും അപ്പോൾ കുറെ ദിവസം അതായത് ആ കൂമ്പ് കണ്ട ദിവസം തൊട്ട് കുറെ കാലം ജനൽ തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് കാരണം എല്ലാവരും പറഞ്ഞോണ്ടായിനത് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അപ്പോഴത് വിരിയുന്നത് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ സമയത്താണത് വിരിയുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ആ സമയത്തുള്ള ഉറക്കം ഒഴിഞ്ഞ് ഇരിക്കും അത് വിരിയുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഒരു ദിവസം അത് വിരിഞ്ഞപ്പം നല്ലൊരു സ്മെല്ല് നല്ല സ്മെല്ലെന്ന് വെച്ചാൽ അത് പിന്നെ സാധാരണ വേറൊരു സ്ഥലത്ത് വിരിഞ്ഞതാണങ്കിപ്പ നമുക്ക് അതിൻറ്റൊരു മണം ഒരു പ്രത്യേക ഇഷ്ടമുള്ള മണമായിരിക്കും അപ്പം ഞാൻ നട്ടിട്ട് ഉണ്ടായതെന്ന് പറയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റുള്ള ഒരു കാര്യമായിരുന്ന് അപ്പം അത് എൻ്റെ ഉള്ളിലും കാണാൻ നല്ല രസമായിരുന്നു ഒരു തൊട്ടിൽ പോലുള്ളൊരു അങ്ങനെ എന്തോ ഒരു ഷേയ്പ്പായിരുന്നു അതിന് ഉണ്ടായത് അപ്പം ഞാൻ എന്തെന്ന് വച്ചാലത് വീട്ടിലെല്ലാവരും ഉറങ്ങണ് അതായത് ഒരു പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞ് സമയത്തായിരുന്നു അത് വിരിഞ്ഞത് അപ്പം ഞാൻ അതിനെ എടുത്ത് പിന്നെ എല്ലാവാർക്കും അപ്പം തന്നെ ഉറങ്ങുന്ന ആൾക്കാരെ എല്ലാം വിളിച്ചത് കാണിച്ചു അവർക്ക് സന്തോഷമായിരുന്നു പക്ഷേ ചെറുതായത് കൊണ്ട് എൻ്റെ സന്തോഷം കൂടി അവർ എൻജോയ് ചെയ്തു ആ ഞാൻ ചെയ്ത് ഉണ്ടാക്കിയതാണല്ലോന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് എനിക്കത് സന്തോഷായിരുന്നു അത് പിന്ന അതേപോലെ തന്നെ പിന്ന വീട്ടിൽ എവിടെ അമ്മേര വീട്ടില് പോയാൽ ഏകദേശം എന്തെങ്കിലും പൂവോ ചെടിയോ ആടെ എന്താണോ ഉള്ളത് ആ സാധനം ഞാൻ കൊണ്ട് വരും ചിലപ്പോൾ അത് എൻ്റെ വീട്ടിലുണ്ടാവും എന്നാൽ പോലും ആ സാധനെടുത്തോണ്ട് വരും അതിനെ പഞ്ഞി പഞ്ഞി പിടിക്കുന്നൊരു മരമുണ്ടായിരുന്നു ഒരു കുരുവെല്ലാം പഞ്ഞിടെ കുരു കുരുവിൻ്റെ ചുറ്റുവായിട്ട് ആ പഞ്ഞി ഇങ്ങനെ പിടിച്ച് നിക്കണത് കാണണം പരുത്തി അപ്പം നമ്മതിങ്ങനെ പറിച്ചെടുക്കലാണ് പഞ്ഞിയായിട്ട് കിട്ടുന്നേ അപ്പോൾ അതേപോലെ ആ വിട്ട്ന്ന് ഞാനെടുത്ത് കൊണ്ട് വന്ന ദിവസം അമ്മൂമ്മേട വീട്ടി പോയപ്പം ആ ചെടിയെടുത്തോണ്ട് വന്ന് ചെടിയെടുത്തോണ്ട് വന്നിട്ട് വീട്ടില് നട്ടു വീട്ടില് നട്ടിട്ട് കുറച്ചത് ഒരു മരമായ സമയത്ത് അവർ പിടിച്ചോണ്ടുണ്ടായിരുന്ന് ശരിക്കും അതാണോ പഞ്ഞീന്ന് എനക്കറിയില്ല അതിലിങ്ങനെ പിടിച്ച് വരുന്നൊണ്ടായിനി അപ്പം ഞാൻ അത് എന്താ ഒരു കൃഷിയായിട്ട് പരുത്തി കൃഷീന്നെല്ലാം പറഞ്ഞ് ചെയ്യുന്നേ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ചെടി മാത്രമായിട്ടാണ് ഉണ്ടായത് അപ്പം എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞു എൻ്റെ വീട്ടില് പഞ്ഞീര മരം ഉണ്ട് അത് ഞാൻ നട്ടതാന്ന് ഞാൻ കൊണ്ട് വന്നതാണെന്നെല്ലാം പറഞ്ഞ് കുറച്ച് കാലം എനിക്ക് ഭയങ്കരമായിട്ട് നടന്നായിരുന്ന് ഞാൻ അത് കുറച്ച് വല്യ മരാവേം ചെയ്ത് പക്ഷേ ഒരു ദിവസം വീട്ടിലെന്തോ പിന്നെ പണിയെടുക്കുന്ന സമയത്ത് വീട്ടില് അച്ഛമ്മ അത് മരംകൊത്തി വലിയ മരോന്നും അല്ല എന്നാലും അത്യാവശ്യം ഒരു ഹൈറ്റില് വന്ന മരമായിരുന്നു അത് എന്നിട്ട് അത് കൊത്തി കൊത്തിയപ്പോൾ എൻ്റടുത്തു പറഞ്ഞിട്ടാണ് അത് കൊത്തുന്നേ ഞാൻ കണ്ടിട്ടുമില്ല അച്ഛൻ പറഞ്ഞ് അത് ആവശ്യം ഇല്ലാത്ത സാധനം അല്ലേ അത് എനക്കൊരു ഫീലും ഉണ്ടായിരുന്നില്ല അതിലിപ്പം ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കതൊരു ഫീലായിരുന്നു അത് ഒന്നൂല്ലങ്കിലും അത് വളർന്നുവല്ലോ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായ സമയമാണ് പക്ഷേ അച്ഛമ്മക്ക് അത് എന്താ സാധാരണ മരം വയസ്സായ ആൾക്കാരെല്ലാം ഇങ്ങനെ മരോല്ലാം നടുവല്ലോ ഇടക്കിടക്ക് അപ്പം അവരിക്കത് ഒന്ന് ഞാൻ ചെറിയൊരു തൈ പോയ പോലെ അങ്ങനത്തെ ഒര് ഫീല് കണ്ട് പക്ഷേ മറ്റേത് ഒരു ഭയങ്കര ഫീലായിരുന്നു അതേപോലെ വീട്ടിലേകദേശം അങ്ങനെ ആയിരുന്നു ഞാൻ എന്തെങ്കിലും ചെടികള് നട്ട് കൊണ്ട് വന്നിങ്ങനെ കാരണം ഏത് സ്ഥലത്താണ് നടെണ്ടത് എന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത സമയം അപ്പോൾ വീട്ടുകാർ പക്ഷേ എന്താ നമ്മൾ ഏതെങ്കിലും സ് കാട്ടിൻ്റെ ഉള്ളിൽ വല്ലോം കൊണ്ട് നട്ടാല് അവരത് കുത്തി കളയോല്ലോ അതേപോലെ കുത്തിക്കളഞ്ഞ് അത് ഒന്ന് രണ്ട് ചെടികളിങ്ങനെ പോയിട്ടുണ്ട് അപ്പമത് എനിക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമായിരുന്നു പിന്നെ എന്തായാലും എപ്പം ആയാലും പൂവളർന്നതില് പൂ പിടിച്ചു അല്ലെങ്കിൽ റോസാ പൂ വല്ലതും ആണങ്കിൽ അതിനെക്കാളും സന്തോഷമുള്ള കാര്യമെന്ന് റോസാ പൂ മുല്ല പൂ മുല്ല പൂല് മുല്ല പൂൻ്റെ സീസൺ ആകണ സമയത്ത് പിന്നെ വീട്ടിൽ മുല്ലവള്ളി കുറെ വർഷങ്ങളായിട്ട് നിക്കുന്ന മുല്ലേര വള്ളിയെല്ലാം ഉണ്ടായേന് അപ്പം ആ ഒര് ടൈമാകുമ്പോൾ വീട്ട്ന്ന് പറയും ആ മുല്ല പിടിക്കുന്ന സമായാണ് ഇപ്പം അതിനെ നോക്കണം അപ്പം ആ സമയകുമ്പോൾ അതിന് നല്ലോണം വെള്ളമൊഴിക്കും ചാണകപ്പൊടിയെല്ലാം ഇട്ട് അതിനെ നോക്കും അപ്പം മുല്ലേട സമയന്ന് പറഞ്ഞാൽ സീസൺ ആകുന്ന സമയത്ത് ചങ്ങായിമാരുടെ വീട്ടിലെല്ലാം അപ്പം അവർ മുല്ല കെട്ടീട്ട് കൊണ്ടരും അല്ലെങ്കിൽ അവർ ചുടീട്ട് കൊണ്ടരും കുറെ മുല്ലേല്ലാം വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ പിന്നെ ഫ്രണ്ട്സിനെല്ലാം ചങ്ങായിമാർക്കെല്ലാം കൊണ്ട് വന്ന് കൊടുക്കും അപ്പം അതേപോലെ എനിക്കും വേണം എന്ന് പറഞ്ഞ് ഞാനും കുറെ മുല്ലേര വള്ളിയെല്ലാം നട്ട് പിന്നെ അമ്മേല്ലാം കൂടീട്ടൊണ്ടയിന് എല്ലാവരും കൂടി വീട്ടിലങ്ങന കുറച്ചൊരു ചാലുപോലെ ആക്കീട്ട് മുല്ലേല്ലാം നട്ട് നട്ടിട്ടുണ്ടായിന് അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ട് തരുമ്പോൾ അവരിക്ക് സന്തോഷമാണ് അപ്പം അതേപോലെ അങ്ങനെ എനിക്കും വേണം എനിക്കും കൊണ്ട് കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അത് വീട്ടിൽ മുല്ലേല്ലാം ആക്കീട്ട് ചങ്ങായിമാർക്കെല്ലാം കൊണ്ട് കൊടുക്കും സ്കൂളില്ലാത്ത ദിവസമെല്ലാം ആണങ്കിൽ ശനീം ഞായറും ആണെങ്കിൽ വീട്ടിൽ തന്നെ ചുടീട്ട് നിക്കും അതേപോലെ റോസാപ്പൂ അതേപോലെ റോസാപ്പൂ മുല്ലപ്പൂ പിടിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാന്ന് അത് കാണാനും നല്ല രസമാണ് അതുപോലെ നമുക്കത് തലേല് വച്ചോണ്ട് പോകാം തലേ ചുടീട്ട് പോകാം ബാക്കിയുള്ള പോലെയല്ല പിന്നതേപോലെ വാഴെല്ലാം വാഴവച്ചോണ്ടന്നെ വീട്ടില് കുറെ അപ്പം അങ്ങനത്തെ കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനാന്ന് കൂടുതലായിട്ടും അതെല്ലാം ചെയ്തോണ്ടേ അതിൽ വെള്ളമൊഴിക്കുക അല്ലേ അതിൽ എന്തെങ്കിലും ചാണകപ്പൊടിയോ എന്തെങ്കിലും സാധനെടുന്നുണ്ടെങ്കിൽ ഞാൻ ഞാനത് എല്ലാറ്റിനും മുൻപെ പോയിട്ട് ചെയ്തോണം വീട്ടിൽ വീട്ടുകാർ ചെയ്യുമ്പോൾ അതിനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഞാനത് ചെയ്തോണ്ട് നിക്കും